എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ ആണ് മൊബൈൽ ഫോൺ എൻ്റെ കയ്യിലിരിക്കുന്നത് വിവോൻ്റെ ഒരു സെറ്റ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സെറ്റ് ആണ് കാരണം എന്താണ് വെച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു ബഡ്ജിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ എന്ന് പറയുകയാണെങ്കിൽ വിവോൻ്റെ ഈ സെറ്റ് ആണ് കാരണം എന്താണ് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ക്വാളിറ്റിയും വലിയ കുഴപ്പമില്ല ഡിസ്പ്ലേ ക്വാളിറ്റിയും വലിയ കുഴപ്പമില്ല നല്ല രീതിയിലൊരു സെറ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം സാധരണക്കാരന് ഇപ്പം ഐ ഫോൺ എടുക്കാനും പിന്നെ വൺപ്ലസ് അങ്ങനത്തെ ഫോണുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും സാധിക്കില്ലല്ലോ കാരണം ഒന്ന് ഒന്നര ലക്ഷം രൂപേന്റെ അടുത്ത് വരും അങ്ങനത്തെ ഫോണിനൊക്കെ അപ്പോൾ നമുക്ക് അതേപോലെയുള്ളൊരു അത്രയും വലിയ ഫീച്ചേഴ്സ് ഒന്നും ഇല്ല പക്ഷേ എന്നാലും ഫീച്ചേഴ്സ് ഉണ്ട് എന്നു പറയുന്ന ഒരു ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ വിവോ ഓപ്പോ അങ്ങനത്തെ സെറ്റുകളാണ് അപ്പോൾ അതിൽ നല്ലൊരു സെറ്റ് നോക്കിയിട്ടാണ് ഞാനെടുത്തത് വൺ ട്വന്റി എയ്റ്റ് ജി ബി റാം കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ എയിറ്റ് ജി ബി റോം ഉണ്ട് പക്ഷേ ഡി ഡി പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റിയും വലിയ കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ ക്വാളിറ്റി ആണ് നമുക്കിപ്പം സിനിമ ഒക്കെ കാണാനും ഇപ്പം എവിടെയെങ്കിലും പോയിട്ട് ബോർ അടിച്ചിരിക്കുവോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണെങ്കിൽ നമുക്ക് സിനിമയോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് വലിയ കുഴപ്പമില്ലാത്ത ഒരു സെറ്റ് ആണ് പിന്നെ നെഗറ്റിവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹാങ്ങ് ആവുന്നുണ്ട് നമ്മളിപ്പം എന്തെങ്കിലൊക്കെ കുറേ ഡൗൺലോഡ് ചെയ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഫോൺ അനങ്ങാത്ത രീതിയിലൊക്കെ ആവുക അങ്ങനത്തെ കുറേ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ചെറിയൊരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചാർജ്ജ് മെല്ലെയാണ് കയറുക ചാർജ്ജ് പെട്ടെന്ന് നമുക്ക് ഇറങ്ങി പോവുന്നത് പോലെ തോന്നുക അതായത് ഇപ്പം ഒരു ദിവസം ഒന്നും ചാർജ്ജ് നിൽക്കലില്ല അപ്പം അതും ചെറിയൊരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്